ഹലോ ആ എന്നായിരുന്നു മോളേ എപ്പം തൊട്ടാ കാണാതെ പോയത് അതെവിടെ ഷെൽഫിലാണോ വെച്ചത് അതേ ഡെസ്ക്കേലാണോ എന്ത് കളറുള്ള ബാഗായിരുന്നു ഇടയ്ക്കൊന്നും രാവിലെ വന്നിട്ട് ഇടക്കൊന്നും നോക്കിയില്ലായിരുന്നോ അതെയോ അയ്യോ അങ്ങനെയുളള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടേ കാര്യം ഞാൻ സെക്യൂരിറ്റിയായിട്ടിവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരവർക്കവരവരുടെ സാധനത്തിനൊരു ചൂടു വേണ്ടേ ഇടയ്ക്കൊക്കെ ഒന്നു നോക്കുകയും പൈസയുള്ളതാവുമ്പോൾ പ്രത്യേകിച്ച് ആ ഓക്കേ ഓക്കേ ഞാനേതായാലും ആ റൂമിലേക്ക് ഞാനൊന്ന് നടന്നു പോവാണേ ഞാനവിടെ ചെന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ ആ ഡെസ്ക്കേലുണ്ടോ എന്ന് അവിടെ കുട്ടികളുണ്ടായിരുന്നവരെല്ലാം നേരത്തെ പോയായിരുന്നു ബെല്ലടിച്ച ഉടനെ തന്നെ കുട്ടികളെല്ലാവരും പോയായിരുന്നു പക്ഷേ നമ്മളിങ്ങനൊരു കാര്യം അറിയുന്നില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വേറെയാരെയും ചെക്ക് ചെയ്തില്ല പിന്നെ ബാഗെന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകുമ്പോൾ എല്ലാവരുടെയും കയ്യിലോരോ ബാഗ്കളുണ്ട് എക്സ്ട്രാ ആരും എടുത്തുകൊണ്ട് പോവാൻ സാധ്യതയില്ല ഇനിയാരെയെങ്കിലും വല്ല സംശയം ഉണ്ടോ ഓക്കേ ഓക്കേ ഞാനിപ്പോൾ റൂമിലു വന്നു ഇവിടെയൊന്ന് നോക്കട്ടെ നോക്കട്ടെ ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ ബാഗില്ല ഇല്ല ഇവിടെ ബാഗില്ലാ ഇവിടെല്ലാം ക്ലീനായിട്ടാ ഇരിക്കുന്നത് ബായ്ഗൊന്നും ഇല്ല ആ ഒരു കാര്യം ചെയ്യാം ഞാനൊന്നു പ്രത്യേകം ശ്രദ്ധിക്കാം പ്രത്യേകം നോക്കട്ടെ ഈ സി സി ടി വി ഒന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ അതിനകത്ത് വല്ല നമ്മുടെ റൂമിൽനിന്ന് റൂമിൽനിന്ന് നഷ്ട്ടപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സി സി ടി വി യിൽ കാണാൻ പറ്റും ഞാൻ നോക്കട്ടേ ഒരു മിനിറ്റേ ആ ആ ഇനിയതറയത്തില്ല ഞാൻ ഞാനൊന്ന് നോക്കട്ടെ ക്ലിയറായിട്ട് കാണുന്നില്ല ഞാനിവിടെ നോക്കിയിട്ട് സി സി ടി യ്ക്കകത്തൊന്നും നമ്മൾ സംശയിക്കത്തക്ക രീതിയിലൊന്നും കാണുന്നും ഇല്ല അപ്പം ആരും കയറിയിട്ടില്ല നിങ്ങൾ ഇനി ഏതെങ്കിലും വേറെ എവിടെയെങ്കിലും വഴിയിൽ ഉച്ചയ്ക്ക് കണ്ട സമയത്തെങ്ങാനും ആ ബായ്ഗ് വല്ല പേനെയെടുക്കാനോ ബുക്കെടുക്കാനോ വല്ലം എടുത്തു പുറത്തുകൊണ്ടുപോയായിരുന്നോ ഇല്ലാല്ലേ അപ്പം ആ ഓഫീസിലങ്ങനെ വെക്കാൻ സാ കേറിയായിരുന്നോ

പൈസ കൂടാതെ എന്നാ ഉള്ളത് ലാപ്ടോപ്പോ ലാപ്ടോപ്പോ അങ്ങനെയെന്തെങ്കിലും ബാഗിൽ എത്ര രൂപയുണ്ടായിരുന്നു ബാഗിനുള്ളിൽ അയ്യോ മോളേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടെ കാരണം നഷ്ട്ടപ്പെട്ട് പോയിക്കഴിഞ്ഞാൽ തെളിവില്ലാത്തതാ നമുക്കിപ്പോൾ നമ്മുടെ ഈ റൂമിൽനിന്ന് നഷ്ട്ടപ്പെട്ടതാണെങ്കിൽ സാധാരണ നമ്മൾ സി സി ടി വിക്കകത്ത് ചെക്ക് ചെയ്യുമ്പം അത് കാണും ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്കത് കാണാൻ പറ്റിയില്ലെങ്കിൽ ആ പൈസ പോയതായിട്ടല്ലേ നമുക്ക് കണക്കുകൂട്ടാൻ പാട്ടുള്ളൂ ഞാനേതായാലും ഇപ്പം ഈ സംസാരിക്കുന്ന സമയത്ത് വല്ലതും നടക്കുവാണേൽ ഇവിടുന്ന് കിട്ടുവാണേൽ തീർച്ചയായിട്ടും ഞാൻ നോക്കട്ടെ ഞാനൊന്നുകൂടെയും കൂടെ നോക്കട്ടെ ഓഫീസിൻറ അതേയല്ലേ ഓഫീസിൽത്തെ ഷെൽഫില് ഈ നീല ഷെൽഫ് നീല ഷെൽഫിലാണോ മഞ്ഞയ്ക്കകത്താണോ നീലയ്ക്കകത്താ നീല ഷെൽഫിനകത്ത് ഞാൻ നോക്കി ഞാൻ നോക്കിയിട്ട് ഞാനൊന്നും കാണുന്നില്ലല്ലോ ഇതിനകത്ത് കാണുന്നില്ല ഇനി ഞാൻ ഈ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അവിടെയെല്ലാം ഒന്ന് നോക്കാം നമ്മുടെ പരിസരത്ത് ക്ലാസിന്റെ പരിസരത്ത് പുറകിലെവിടെയെങ്കിലും വല്ല പിള്ളേരും നമ്മളെ കളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ എന്നിട്ട് നോക്കിയിട്ട് ഞാൻ ദേ പത്ത് മിനിറ്റിനുള്ളിൽ തിരിച്ചു വിളിച്ചാൽ പോരേ ആ ആ എന്നാൽ ശരി വിളിക്കാം കേട്ടോ വിളിക്കാം ഓക്കേ ഓക്കേ